ഈയിടെ ഞങ്ങളൊരു യാത്ര തിരിച്ചു എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയെല്ലാവരും കൂടെ ഞങ്ങൾ പെട്ടന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാരുന്നു കൊല്ലം വഴിയാണ് പോയത് ഒരു അമ്പലത്തിൽ പോയതായിരുന്നു അമ്പലത്തിൽ പോയി ഈയിടെ വെച്ചാൽ ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ പോയി അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഒരു പ്രത്യേക പൂജയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു കസിൻ്റെ കൊച്ചിൻ്റെ പിറന്നാളായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് പോവാമെന്ന് ഇവിടെ നേർച്ചയായിരുന്നു ഞങ്ങൾ അവിടെ പോയി കാറിനാണ് പോയത് രണ്ട് കാറുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് ഫാമിലി കാറിന് പോയി അവിടെ ചടങ്ങെല്ലാം നടത്തി നല്ല ഭംഗിയായിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞു ആ അമ്പലം എന്ന് വെച്ചാൽ കൊല്ലത്തിന് പിന്നേയും പോവണമായിരുന്നു ട്രാവലിങ് നല്ല ദൂരമുണ്ടായിരുന്നു എന്നാലും നല്ല ഹാപ്പിനസ്സായിട്ട് ഹാപ്പിയായിട്ട് ജോളിയായിട്ടാണ് ഞങ്ങൾ പോയത് ബീച്ചിൻ്റെ അടുത്തായിരുന്നു ആ അമ്പലം ഞങ്ങൾ ബീച്ചിലൊക്കെ ഇറങ്ങി നല്ല പോലെ കുറച്ച് എൻജോയ് ചെയ്തു അവിടന്ന് ഉച്ചയോടെ ഞങ്ങൾ തിരിച്ചു തിരിച്ചവിടന്ന് കൊല്ലത്ത് വേറെ ടൂറിസ്റ്റ് പ്ലെയിസിൽ ഞങ്ങൾ പോയി സാമ്പ്രാണിക്കൊടിയെന്ന് പറഞ്ഞൊരു ഐലൻഡാണ് അവിടെയും പോയി അവിടെ വൺ ഹവറാണ് നമുക്ക് സ്പെൻറ്റ് ചെയ്യാനുള്ള ടൈമ് വൺ ഹവർ നമുക്ക് മാക്സിമം വളരെ സ്പെൻഡ് വൺ ഹവറ് ആ ഒരു ഒരു ഹണ്ട്രഡ് വൺ ഫിഫ്റ്റിയാണ് അതിൻ്റെ റേഞ്ച് റേഞ്ച് വരുന്നത് അപ്പോൾ വൺ വൺ ഹവർ നമുക്കവിടെ സ്പെൻറ്റ് ചെയ്യാം വൺ ഹവർ സ്പെൻറ്റ് ചെയ്തു നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് അവിടെ കുറേ നല്ല കുറേ ഫോട്ടോസൊക്കെയെടുത്ത് ചില്ലായിട്ടിരുന്നു അവിടുന്ന് ഞങ്ങളൊരു അവിടുന്ന് വൺ ഹവറ് കഴിഞ്ഞപ്പോൾ ഒരു ഈവനിങ്ങായപ്പോൾ പിന്നെ അവിടുന്ന് തിരിച്ചു തിരിച്ച് ഞങ്ങൾ ബീച്ചിൽ പോയി കൊല്ലം കൊല്ലം ബീച്ചിൽ പോയി നൈറ്റ് ഒരു നൈറ്റ് ഒരു എട്ട് എട്ട് എയ്റ്റ് ഓ ക്ലോക്ക് എട്ട് മണിയൊക്കെ ആയപ്പം ഞങ്ങളൊരു അവളുടെ ബെർത്ത് ഡേയുടെ കേക്ക് ഒക്കെ മുറിച്ചു ബീച്ചിലുള്ള എല്ലാവർക്കും കേക്ക് കൊടുത്തു ഒരു ഓവർ നൈറ്റൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് വരാനുള്ള യാത്രയായിരുന്നു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ ലാൻണ്ട് ചെയ്തു ആ ഫാമിലിയായിട്ട് പോയപ്പോൾ നല്ല ഹാപ്പിനെസായിട്ടുള്ളൊരു മൊമൻറ്റ് തന്നെ ആയിരുന്നു